നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ഉണ്ടാകുന്നതിൽ അത് പ്രത്യേകിച്ച് നിയമപരമായ രേഖകളൊക്കെ ആണെങ്കിൽ അത് ഉണ്ടാക്കാൻ അത് കിട്ടുവാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് അതായത് അതിൽ നേരിടേണ്ടി വരുന്ന കാലതാമസം പിന്നെ അതിന് വേണ്ടി നമുക്ക് പല തവണ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട അനുഭവം അങ്ങനെ ഒരിക്കൽ ഞങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പുതിയ ഞങ്ങളൊരു പുതിയ വസ്തു വാങ്ങുകയുണ്ടായി ഒരു ചെറിയ ഒരു വീട് വീട് ഒരാളുടെ കൈയിൽ നിന്നും നമ്മൾ വാങ്ങുകയുണ്ടായി അതിൻ്റെ റെജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാ രേഖകളും നമ്മുടെ കൈയിലുണ്ട് അങ്ങനെ ഒരു രണ്ട് വർഷത്തോളം കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു നികുതി അടക്കേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ നികുതി അടക്കാനായി നമ്മൾ വില്ലജ് ഓഫീസിൽ ചെന്നപ്പോൾ പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഇത് നമ്മുടെ കൈയിൽ അതിൻ്റെ ആധാരം കോപ്പികളെല്ലാമുണ്ട് പക്ഷെ അവിടെ നിന്ന് പറയുന്നത് ഇപ്പോഴും ഞങ്ങളുടെ രേഖയിൽ നിങ്ങളുടെ പേരിൽ ആയിട്ടില്ല പഴയ ആളുടെ പേരിലാണ് അപ്പോൾ അതിന് വേണ്ടി ഇനി വേറെ ഒരു രേഖ ഉണ്ടാകണം അതിന് വേണ്ടി പല ഫോമുകൾ എല്ലാം അപ്ലൈ അപ്ലൈ ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് സ സമയമെടുത്ത് അത് കയറി ഇറങ്ങേണ്ടി വന്നു പിന്നെ നമുക്ക് അറിയാമല്ലോ ഗവൺമെൻറ് ഓഫീസുകളിൽ ആണെങ്കിൽ പല ദിവസങ്ങളിലും അവിടെ ജീവനക്കാർ ഉണ്ടാവില്ല ജീവനക്കാർ ഉണ്ടെങ്കിൽ അവിടെ സിസ്റ്റം മറ്റോ കേടായിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു ചെറിയ നിസ്സാര സംഭവത്തിന് വേണ്ടി ഏകദേശം ഒരു മാസകാലത്തോളം നമുക്ക് അലയേണ്ടി വന്നു